സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ബാങ്കിങ് സേവനം എളുപ്പമാക്കുന്നത് എന്നതിന് ഉപരിയായിട്ട് എന്താണ് മനുഷ്യൻ്റെ ഇടപെടലിൽ അഭാവം നിങ്ങൾക്ക് കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം നമുക്ക് അറിയാം സോഷ്യൽ മീഡിയേയുടെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ കടന്നുക്കയറ്റം ഒരു പരിധി വരെ കാര്യങ്ങൾ എല്ലാം എളുപ്പമാക്കുകയും സുഗമമാക്കുകയും ചെയ്തിട്ട് മാത്രമേയുള്ളു കാരണം നമുക്ക് അറിയാം നമ്മൾ ഇപ്പം ജീവിക്കുന്നത് ഒരു പുരോഗത ഒരു പുരോഗിത കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു മോഡേൺ വേൾഡിലാണ് എന്ന് വേണേൽ പറയാം കാര്യം കാര്യങ്ങൾ ഇപ്പം എല്ലാം ഓൺലൈനിൽ ആണ് ഓഫ്ലൈനിൽ അല്ല ഇപ്പം നമുക്ക് അറിയാം ബാങ്കിങ്ങ് സേവനങ്ങൾ എന്ന് പറയാണെങ്കിൽ നിരവധി അക്കൗണ്ടുകൾ ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റ് പേ ഡെബിറ്റ് അങ്ങനെ വളരെ അധികം വളരെ അധികം പുരോഗതി കൈവരിച്ച് കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ടെക്നിക്കൽ മേഖലയിൽ അപ്പം മനുഷ്യന്മാരുടെ ഇടപെടൽ ഇല്ലാത്തത് തന്നെയാണ് നല്ലത് കാരണം നമുക്ക് അറിയാം ഇത്രയും മോഡേൺ അല്ലെങ്കിൽ ഇത്രയും പുരോഗതി കൈവരിച്ചൊരു ലോകത്തിൽ നമ്മൾ നമ്മൾ തീർത്തും പഴയവരായി ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് തീർത്തും സമയം നഷ്ട്ടമാണ് സമയത്തിൻ്റെ നഷ്ടമുണ്ട് നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നത് അതുണ്ട് ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ നോക്കുക ആണെങ്കിൽ വളരെ അധികം വളരെ അധികം മെച്ചം നമുക്ക് ഉണ്ട് കാരണം ഇപ്പം ഇപ്പം ആണെങ്കിൽ നമുക്ക് എന്താ ജെസ്റ്റ് ഒന്ന് ബാങ്കി ചെന്നിട്ട് ഇന്ന അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് അത് പെട്ടന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാൽ പണ്ട് അങ്ങനെ അല്ലായിരുന്നു വളരെ അധികം ബുദ്ധിമുട്ടിയാണ് അവർ കണക്കുകൾ എല്ലാം അല്ലെങ്കിൽ ബാങ്കിങ്ന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു എന്താണ് കണക്കാണ് അല്ലെങ്കിൽ ഒരു മാക്സാണ് അതിന് മുമ്പിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട്പരമായ ട്രാൻസാക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണ് അതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം ബാങ്ക് സേവനം എളുപ്പമാക്കിയിട്ടുണ്ട് മനുഷ്യൻ്റെ ഇടപെടൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് ഒരു പരിധി വരെ നല്ലത് കാര്യങ്ങൾ എന്നിരുന്നാൽ കാര്യങ്ങൾ എല്ലാം വളരെ സുഖപ്രദമായി ഓടുന്നുണ്ട്